ഇപ്പോൾ പൊതുവെ എനിക്ക് പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ട്മാണോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടം തന്നെയാണ് കൂടുതലായിട്ടും ഞാൻ കേൾക്കുന്നത് എന്താ പറയുക സിനിമ ഇപ്പം വരുന്ന ന്യൂ ജെൻ സിനിമകളിലെ പാട്ടുകളാണ് പിന്നെ ഇടക്ക് എന്താ പറയുക പഴയ കാലത്തെ സിനിമകളിലെ പാട്ടുകളും എനിക്കിഷ്ട്മാണ് എന്നാലും ഇപ്പം വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും കേൾക്കുന്നത് പുതിയ ഗാനങ്ങൾ തന്നെയാണ് ഇപ്പം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലായാലും മറ്റ് ടൈമുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് കൂടുതലും ഇഷ്ട്ം ഇങ്ങനെ പുതിയ പാട്ടുകളും കുറച്ചെന്താ പറയുക ഒരു ടൂക്കെ ടൈപ്പ് ഓൾഡ് പാട്ടുകളൊക്കെയാണ് നമുക്കിഷ്ടം അപ്പോൾ അത്യാവശ്യം നല്ല ഗാനങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ അത് വെക്കാനാണ് സാധാരണ ശ്രദ്ധിക്കാറ് അപ്പം അത്യാവശ്യം എന്താ പറയുക പാട്ട് കേൾക്കാനും പാടാനൊക്കെ താത്പര്യമൊള്ളൊരാളായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും നിലനിൽക്കുന്നത് പിന്നെ നല്ല ഗാനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കത് ആസ്വദിക്കാനും അതിനനുസരിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് അതിന്റെ കൂടെ പാടാനൊക്കെ തോന്നുമെങ്കിലും നമ്മളത് ആസ്വദിക്കുക തന്നെയാണ് സാധാരണ ചെയ്യുക നല്ലവണ്ണം ചെറുതായിട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മൾ അങ്ങനെ പോവുകയാണ് സാധാരണ പതിവ് അപ്പോൾ ഇഷ്ട്ടപ്പെട്ട ഗായകരാരൊക്കെയാണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിത്രാമേമിനെ ഇഷ്ട്മാണ് പിന്നെ യേശുദാസ് പിന്നെ ആരാണ് വേണുഗോപാൽ അങ്ങനെ ഒരുപാട് പേരെ എനിക്കിഷ്ട്മാണ്